ഞാനെൻറ്റെ അഞ്ചാം ക്ലാസ് തൊട്ട് ഡാൻസ് സിനിമാറ്റിക് ഡാൻസ് പഠിച്ചിട്ടുണ്ട് അഞ്ചു തൊട്ട് പത്താം ക്ലാസ് വരെ ഞാൻ സിനിമാറ്റിക് പഠിച്ചിട്ടുണ്ട് ഞാൻ ഒരു അഞ്ചിലൊക്കെ പഠിക്കുന്ന സമയം ഞാൻ ഒരുപാടധികം വണ്ണമുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ കുറച്ചധികം തടിയുള്ള കൂട്ടത്തിലായിരുന്നു ആ സമയത്താണ് ഞാൻ പാട്ട് പഠിക്കാനായിട്ടുള്ള ഒരു ഇൻറ്ററസ്റ്റിലാണ് ഞാൻ പോയത് പക്ഷേ ഞാൻ ഡാൻസിന് ചെന്നു ചേർന്നു ഡാൻസിന് ചേർന്നതിനു ശേഷം ഡാൻസ് കളിക്കുകയും കളിച്ച് കളിച്ച് വളരെയധികം അതിൽ ഇൻട്രസ്റ്റ് ആകുകയും ചെയ്തപ്പോൾ ഞാനത് സ്ഥിരമായിട്ടുള്ള ഒരു ഹോബിയാക്കി അതിനായിട്ട് കുറേ അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ സ്ഥിരമായി ഡാൻസ് ചെയ്ത് ചെയ്ത് എൻ്റെ എനിക്ക് വണ്ണമുള്ളത് ഞാൻ കുറച്ചധികം മെലിഞ്ഞു എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരുപാടധികം വെയിറ്റ് കുറഞ്ഞു ഞാൻ ഒന്നുകൂടി ഫ്രീ ആയി അതേപോലെ തന്നെ ഡാൻസ് ഒരുപാടധികം ഞാൻ നല്ല രീതിക്ക് കളിച്ചു തുടങ്ങി ഞാൻ ഒരുപാട് അധികം മൊബൈൽ ഫോൺ യൂസ് ചെയ്തിരുന്നു ഗെയിംസ് ഒരുപാടധികം കളിച്ചിരുന്നു സോഷ്യൽ ഇൻറ്ററാക്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചധികം കുറവായിരുന്നു പക്ഷേ ഡാൻസിലൂടെ എനിക്ക് പുതിയൊരു ഹോബിയും എനിക്ക് വളരെ ഇന്ട്രെസ്റ്റിങ്ങായൊരു കാര്യമായിട്ട് തോന്നി ഞാൻ പഠിക്കുന്നതിലും വീക്കായിരുന്നു പക്ഷേ എനിക്ക് ഡാൻസ് വളരെ ഇഷ്ടമായിരുന്നു അതു കൊണ്ടു തന്നെ ഒരുപാടധികം ഡാൻസിൽ ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ഞാൻ അത്യാവശ്യം ഗ്രേസ്ഫുള്ളായി എൻ്റെ ബോഡി വെയ്റ്റ് കുറഞ്ഞു കുറെ കുറെ പ്രോഗ്രാംസിന് ഇറങ്ങി കുറെ കുറെ കോംപറ്റീഷനുകളിൽ ഇറങ്ങി അങ്ങനെ എനിക്ക് ഡാൻസിനു തന്നെ ഒരു ഒരു കോൺഫിഡൻസ് വന്നു തുടങ്ങി ഞാൻ പറയുകയാണെങ്കിൽ ഡാൻസ് ഒരു നല്ല ഒരു വ്യായാമം ആണ് ഒരു വളരെ നല്ലൊരു എക്സർസൈസാണ് ഡാൻസ് എന്നു പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം തടി കുറക്കാനായിട്ട് പല ആൾക്കാരും ഇപ്പോൾ ഒരു വെയ്റ്റ് ലിഫ്റ്റിംഗോ അല്ലെങ്കിൽ കാർഡിയോ ഒക്കെ ചെയ്യാൻ മടിയുള്ള ആൾക്കാർ സും സൂംബ എന്ന പോലത്തെ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ട് തടി കുറക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് നമുക്ക് ഡാൻസ് ചെയ്തു കൊണ്ട് നമ്മുടെ ബോഡിയിലെ തടി കുറക്കാം നമുക്ക് ഫ്രീയാകാം നമുക്ക് മെൻറ്റലി നമുക്ക് വളരെയധികം ഫ്രീയാകാം നമ്മൾ സ്ട്രസ്ഡായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് വെച്ച് വളരെ ഫ്രീയായിട്ട് ആരെയും കുറിച്ച് ബോദറെയ്യാണ്ട് നമുക്ക് നമ്മുടേതായൊരു വൈബിൽ നമ്മുടേതായൊരു സോണിൽ വളരെയധികം എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ആണ് ഡാൻസ് ഞാൻ ഒരുപാട് സമയം വിഷമത്തിലാകുകയും കുറച്ചധികം മൂഡ് ഓഫായിരിക്കുന്ന സമയം എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ടു വെച്ച് ഡാൻസ് കളിക്കുമ്പോൾ ഞാനാ ഒരു മൊമെൻറ്റ് ചെറിഷ് എനിക്കാ ഒരു മൊമെൻറ്റ് ഓക്കേ ആകാറുണ്ട് എനിക്ക് എൻ്റെ വിഷമം ഞാൻ മറക്കാറുണ്ട് സോ അതേപോലെ ഡാൻസ് നമുക്ക് ഒരുപാട് രീതിയിൽ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നൃത്തം ചെയ്യുമ്പോൾ നമുക്കീ പറഞ്ഞതു പോലെ നമുക്കിഷ്ടപ്പെട്ട പാട്ടു വെച്ച് നമ്മുടെ കൂട്ടുക്കാരുടെ കുടെ അല്ലെങ്കിൽ നമ്മുടെ വളരെയിഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ നമുക്കുള്ള ടെൻഷനുകളും കാര്യങ്ങളൊക്കെ മറക്കുന്നതു കൊണ്ടാണ് നമ്മളതിലൊരു സന്തോഷം നമുക്ക് വരുന്നത് ഈ പറഞ്ഞതു പോലെ വളരെ ഫ്രീയായി നമ്മുടെ കൈകളും കാലുകളും ഇട്ടടിക്കുന്നതു പോലത്തെ ഡാൻസ് കളിക്കുമ്പോൾ നമുക്ക് പലർക്കുമറിയാം വളരെയധികമൊരു എനർജിയും ഒരു വൈബും ഒരു വല്ലാത്തൊരു എനർജി നമുക്കതിൽ നിന്ന് കിട്ടാറുണ്ട് നമ്മളിപ്പോൾ ഞാ കോളേജിൽ പഠിക്കുമ്പോൾ കോളേജിലെ പരിപാടികളുടെയിടയിൽ സ്റ്റേജിൽ ഡാൻസ് കാണുന്നുണ്ടെങ്കിൽ പോലും ആ പാട്ടു കേട്ട് നമ്മൾ പുറത്തു നിന്ന് ഡാൻസ് കളിക്കാറുണ്ട് അതെന്തുകൊണ്ടാണ് നമുക്കാ ഒരു പാട്ടും നമ്മുടെ ഫ്രണ്ട്സും എല്ലാരും കൂടിച്ചേരുമ്പോൾ ഒരു വൈബ് കിട്ടുന്ന കാരണമാണ് അതുകൊണ്ടെന്നെ ഡാൻസ് കളിക്കുന്നത് നമുക്ക് സന്തോഷം കൂട്ടാനും അതേപോലെ തന്നെ അതൊരു വളരെ നല്ലൊരു എക്സർസൈസാണെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു അതേപോലെ തന്നെ നൃത്തം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ടൈമിങ്ങും ഷാർപ്നസ്സും കൂടുമെന്നുള്ളതു കൊണ്ട് കാരണം നമ്മൾ ഒരു പാട്ടിന് കറക്ട് അതിൻറ്റേതായ സമയത്ത് കറക്ടായിട്ട് നമ്മൾ പഠിച്ചുവെച്ചതു പോലെ തന്നെ ചെയുമ്പോൾ നമ്മുടെ മൈൻഡ് ഷാർപ്പാകുകയും നമ്മൾ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു സംഭവത്തിൽ തന്നെ നമ്മളൊരു കോൺസൻട്രേഷൻ കൊടു കൊടുക്കുകയും ചെയ്യും അത് നമ്മുടെ കോൺസൻട്രേഷൻ പവറും കൂട്ടും നമുക്ക് ഗ്രാസ്പിങ്ങ് പവറും എവിടെ സ്റ്റാർട് ചെയ്യണം എവിടെ എൻ്റ് ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു ഐഡിയ നമ്മുടെ മൈൻഡിന് നമ്മളത് ഡെവലപ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഡാൻസ് സഹായിക്കാറുണ്ട് പിന്നെ ഈ പറഞ്ഞതു പോലെ ഡാൻസ് ചെയ്യുന്നതു കൊണ്ട് ഒരുപാടധികമാൾക്കാർ നമ്മളെ എംബ്രേസ് ചെയ്യും അതേപോലെ തന്നെ നമുക്ക് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും നമുക്കൊരു ടാലൻറ്റ് ഉണ്ടെന്നുള്ളതും അല്ലെങ്കിൽ നമുക്കും വളരെ ഫ്രീയായി എല്ലാരുടെ കൂടെ ജോയിൻ ചെയ്യാനും ഒരുപാടധികം മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യാനും ഡാൻസ് ചെയ്യുന്നവർക്ക് പറ്റും എന്നു തോന്നിയിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞതു പോലെതന്നെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു വ്യായാമം ഒരു അല്ല ഡാൻസ് എല്ലാർക്കും വളരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയ നമുക്കിപ്പോൾ അറിയാം ഓരു ജിമ്മീൽ പോയി വർക്ക് ഔട്ട് ചെയുന്നത് അല്ലെങ്കിൽ ഒരു കാർഡിയോ ഓടാൻ പോകുന്നതോ നടക്കാൻ പോകുന്നതോ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുക്ക് ചി ല ചില ആൾക്കാരിൽ അതൊരു വളരെ ഭാരപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് ഇൻറ്ററസ്റ്റ് ടിങ്ങായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഇല്ലാത്തവരുണ്ട് പക്ഷേ ഡാൻസെന്നു പറയുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട പാട്ട് വെച്ച് നമുക്കിഷ്ടമുള്ള രീതിക്ക് ബോഡി മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ അതൊരു നല്ല രീതിക്കുള്ള വ്യായാമമാണ് നമ്മൾക്ക് മടി തോന്നാണ്ട് നമ്മളത് ത്രൂ ഔട്ട് ചെയ്യാനും ശ്രമിക്കും ഇപ്പോൾ ഈ പറഞ്ഞതു പോലെ ഡാൻസ് ഒരു നല്ല എക്സർസൈസുമാണ് അതേപോലെ തന്നെ നമുക്ക് ഒരു മെൻറ്റൽ പീസിനും നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഡാൻസ് ഞാൻ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഡാൻസ് പഠിക്കണം എല്ലാവരും ഒരു ഡാൻസിലെങ്കിലും എൻഗേജ് ചെയ്യാൻ ശ്രമിക്കണം നമ്മുടെ ഉള്ളിലെ സ്ട്രെസും ഡിപ്രഷനും എന്നിങ്ങനെയുള്ള എല്ലാ നെഗേറ്റീവ് തോട്ട്സും എല്ലാം നല്ല നമുക്കിഷ് ട്ടപ്പെട്ട പാട്ടിൽ നല്ല ഫ്രീയായി ഡാൻസ് കളിച്ചാൽ കുറയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ചധികം തടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്കും ഡാൻസ് കളിക്കുന്നള്ളതിലൂടെ സന്തോഷം ഉണ്ടാകും അതേപോലെ തന്നെ അവരുടെ ശരീരം മെലിയുകയും അവർക്ക് വളരെ ഹെൽത്തിയായി നിൽക്കാനും പറ്റും